ഹലോ ആ ഇതാരാ അതെ ഡോക്ടറാണ് ഇതാരാ എവിടെ നിന്നാണ് വിളിക്കുന്നത് പാക്കത്തു നിന്നാണോ എന്താ പേര് ആ ആ എത്ര ദിവസം ആയി വയറുവേദന തുടങ്ങിയിട്ട് ആ ഇതിന് മുമ്പും ഉണ്ടായിരുന്നോ ആദ്യം ആയിട്ട് വരുന്നതാ ആ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വയറുവേദന അല്ലാതെ പുറത്ത് പോക്കോ ഓ ആ പുറത്ത് പോക്കില്ല അതെയോ ആ ഇന്നും അതേപോലെ ഉണ്ട് ഇന്നലത്തെ കണക്ക് തന്നെ ഉണ്ട് ഇന്നും അതെയാ അതിൻ്റെ മരുന്ന് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിരുന്നോ അതെയോ അത് മരുന്ന് ആയിട്ട് ഒന്ന് കഴിച്ചിരുന്നോ വയറുവേദന ഒക്കെ ആയിട്ട് അതിന് എന്തെങ്കിലും മരുന്നായി കഴിച്ചിരുന്നോ അതെയോ ആ മുരിങ്ങ അതെ മുരിങ്ങ ഇല കഴിച്ചതുകൊണ്ട് അതെ എങ്കില് രണ്ട് ദിവസം അതെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അത് മാറും ആ വയറ്റിലോ മുരിങ്ങയില ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ആയിറ്റാമ്പം അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് നിങ്ങള് ഹോസ്പിറ്റലേക്ക് ഇന്ന് വരേണ്ടി വരും

ആ ആ ആ

അതെയോ ഇത് മുരിങ്ങ ഇല എല്ലാർക്കും ശരീരത്തിന് ഉള്ളിൽ വലിയ ഇത് പറ്റണമെന്ന് ഇല്ല ചില ആൾക്ക് അത് മുരിങ്ങ ഇല കഴിച്ച് കഴിച്ച് അപ്പോൾ മുമ്പും പ്രശ്നം ആയിട്ട് വരാറുണ്ട് അപ്പോൾ അത് നമ്മളെ ശരീരത്തു നിന്ന് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിറ്റാമ്പോ അത് മൂലം ഉണ്ടായ വയറുവേദന ഒക്കെ അപ്പോൾ പോവും അല്ലാതെ മറ്റ് വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുന്ന വരെ ഇത് എങ്കില് നിങ്ങള് ഹോസ്പിറ്റലിലേക്കുതന്നെ വരേണ്ടി വരും

ആ ആ ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് അപ്പോൾ വയറ്റില് എന്തെങ്കിലും അതുകൊണ്ടായിരിക്കും അത് നിങ്ങളത് നേരിട്ട് നോക്ക് എന്നാൽ എന്നിട്ട് ഒന്നും ശരി ആയില്ലെങ്കില് നിങ്ങള് ആ ഹോസ്പിറ്റലിലേക്കുതന്നെ വരേണ്ടി വരും ഓക്കെ ഓക്കെ ആ